ആദ്യം പാത്രത്തിലെ വേസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിട്ട് പാത്ര ഒന്നു ജസ്റ്റ് ഒന്നു കഴുകുക കഴുകിയിട്ട് നമ്മൾ ലിക്വിഡ് സോപ്പ് ഒരു പാത്രത്തിലെടുത്ത് അതിൻറ്റകത്ത് ലേശം വെള്ളവും ഒഴിച്ച് അതു കൂട്ടിയിട്ട് അതിൻ്റകത്തേക്ക് സ്ക്രബർ മുക്കി സ്ക്രബർ കൊണ്ടു നമ്മൾ പാത്രത്തെ തേച്ച് പാത്രം നല്ലവണ്ണം പതവരുന്ന പാത്രം ഉപയോഗിച്ച് അതു കഴുകിയിട്ട് അതു നല്ല ആദ്യം നല്ല വെള്ളത്തിൽ കഴുകുക അതു കഴിഞ്ഞ് വീണ്ടും ചെറിയ ചൂടു വെള്ളത്തിൽ ഉപയോഗിച്ച് ചൂടു വെള്ളം ഉപയോഗിച്ച് പാത്രം കഴുകുക മണമുള്ള പാത്രങ്ങളിൽ നെയ്യും മറ്റും പറ്റിയിരിക്കയാണെങ്കിൽ ചെറു ചൂടു വെള്ളത്തിൽ ഉപയോഗിച്ചു വേണം പാത്രം കഴുകാനായിട്ട് എങ്കിൽ മാത്രമേ ആ നെയ്യുടെ അംശവും എണ്ണമയവും എല്ലാം പോകുകയുള്ളു ചൂടു വെള്ളത്തിൽ കഴുകുമ്പം നമ്മൾ ബാക്റ്റീരിയയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് സാധിക്കും അതു പോലെ തന്നെ പിന്നെ ഏറ്റവും എളുപ്പമുള്ള പാത്രം കഴുകാനായിട്ട് ചൂടു വെള്ളം ഉപയോഗിച്ചു തന്നെ പാത്രം കഴുകുന്നതാണ് ഏറ്റവും പ്രയോജനമായിട്ടുള്ളത് ബാക്ടീരിയകളൊക്കെ നശിക്കുന്നതിനും എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കയും ചെയ്യും ആ സ്മെല്ലും ഒക്കെ പോകുന്നതിനും നല്ല മണമുള്ള എക്സെൽ വിമ്മിൻ്റെയോ അല്ലേൽ പ്രില്ലിൻ്റെയോ ലോഷൻ ഉപയോഗിച്ചു കഴുകിയാൽ നല്ല മണവും കിട്ടും പാത്രത്തിൽ എണ്ണ മയവും മെഴുക്കും എല്ലാം പോകുകയും ചെയ്യും അതുപോലെതന്നെ ഇപ്പം പണ്ടുള്ളവർ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത് ചാരം ഉപയോഗിച്ചായിരുന്നു ചാരമുപയോഗിച്ച് ആ ചാരം നമ്മൾ ഇപ്പോഴത്തെ തലമുറകൾ ചാരം ഉപയോഗിച്ചുള്ള പത്രം കഴുകുകയോ ഒന്നുമില്ല കരി പാത്ര ആണെങ്കിൽ പോലും അത് സ് വിമിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ചാണ് കഴുകുന്നത് വിം ലിക്വിഡ് ഉപയോഗിക്കുമ്പോൾ അതു നമുക്ക് നന്നായിട്ടത് പോകുന്നതിന് സ്ക്രബർ സ്റ്റീൽ സ്ക്രബർ നമ്മൾ കൂടുതൽ പിന്നെ കട്ടിയായിട്ടുള്ള സാധനങ്ങൾ പാത്രങ്ങളൊക്കെ തേക്കുന്നതിനൊക്കെ സ്റ്റീൽ സ്ക്രബർ ഉപയോഗിക്കുക അല്ലാത്തതാണെങ്കിൽ പിന്നെ ഇത് ഉപയോഗിച്ച് വേണം കഴുകാനായിട്ട് അതുപോലെതന്നെ ആണെങ്കിൽ പിന്നെ നമ്മുടെ പഴയ സോക്സ് ഉപയോഗിക്കാത്ത സോക്സുണ്ടെങ്കിൽ ആ സോക്സ് കട്ട് ചെയ്തിട്ട് അതിൻറ്റകത്ത് നമ്മളീ സ്ക്രബർ വെച്ചിട്ട് ആ സ്ക്ര ആ ഇതുകൊണ്ട് കഴുകുകയാണെങ്കിൽ നമ്മുടെ പാത്രത്തിലോട്ടു പിന്നെ പിന്നെ വരച്ചിൽ പാടും വരികയില്ല നല്ല ഇതായിട്ട് പിന്നെ അത് പതയും വന്ന് പാത്രമെല്ലാം നല്ല വൃത്തിയായി സോപ്പ് പിന്നെ ഇത് അംശങ്ങളെല്ലാം പോയി നല്ല വൃത്തി ആകുന്നതിനും സാധിക്കും അങ്ങനെ പാത്രം ഒക്കെ വൃത്തിയാക്കി കഴുകി പിന്നെ അങ്ങനെ കഴുകിയതിനു ശേഷം ചൂടു വെള്ളം ഉപയോഗിച്ച് ഒന്നുകൂടി പത്രം കഴുകുമ്പം ആ പാത്രങ്ങളെല്ലാം വൃത്തിയായിട്ട് ഇരിക്കും അങ്ങനെ മണവും ഇതുമെല്ലാം പോകാനായിട്ട് സാധിക്കും വൃത്തിയാക്കാനായിട്ട് ഞങ്ങളുപയോഗിക്കുന്നത് സോപ്പ് ലിക്വിഡ് സോപ്പ് ന്ന ലിക്വിഡ് സോപ്പിൻ്റെ ന്ന വിം ജെല്ലും പ്രില്ലും അതു പോലെ തന്നെ വിമ്മിൻ്റെ സോപ്പും ഉപയോഗിക്കുക എന്നുണ്ട് ഈ മൂന്നു സാധനങ്ങളും ഞങ്ങൾ ഉപയോഗിക്കുന്നത് ചാരം ഉപയോഗിച്ച കൈക്കൊക്കെ ഇതാകുന്നതു കൊണ്ട് ചാരത്തിൻ്റെ അംശമുള്ളതു കൊണ്ട് ഞങ്ങൾ ചാരം ഉപയോഗിക്കാറില്ല